ആ പറയുക ആ അതെ അതെ അതെ നിങ്ങളെവിടെയാണ് സ്ഥലം വട്ടപ്പാടം നിങ്ങളപ്പോള് എവിടെ പാലക്കാട് ജില്ല ആ ഓക്കെ ഓക്കെ ഓക്കെ നിങ്ങളിപ്പോള് എവിടെയാണ് നിങ്ങള് ഉദ്ദേശിക്കുന്നത് പാലക്കാട് ആ അവിടെയുണ്ട് ആ നമുക്ക് നിങ്ങള് ബഡ്ജറ്റ് എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ നമ്മുടെ ഇവിടെ മലപ്പുറം ഭാഗത്തൊരു സ്ഥലമുണ്ട് നമ്മുടെ ഈ ഈ പാണ്ടിക്കാട് ഭാഗത്തായിട്ട് പക്കുളമെന്നൊക്കെ പറയും അവിടെ വന്നിട്ട് നമുക്ക് നമ്മുടെ പാണ്ടിക്കാട് പാണ്ടിക്കാട് ഹയർ സെക്കൻഡറി സ്കൂളുണ്ട് അതേപോലെ അവിടെ എങ്ങനെ ആ പള്ളിയൊക്കെ അടുത്താണ് ആ പള്ളിയും മദർസയുമൊക്കെ അടുത്തുതന്നെയാണ് അവിടെയിപ്പോള് അവിടെ രണ്ട് സ്ഥലമുണ്ട് ആ വീടടക്കമുള്ളതാണ് അതില് നിങ്ങള്ക്ക് വേണമെങ്കില് ഫർണീച്ചറും കാര്യങ്ങളുമൊക്കെ അതിലുണ്ടാകും ആണ് എങ്ങനെ ആ അങ്ങനെ വേണമെങ്കില് നമുക്കങ്ങനെ ചെയ്യാം അത് അവരോട് പറഞ്ഞാല് മതി ബൾക്കായിട്ട് കിട്ടും പക്ഷേ ഇത് അവിടെ രണ്ട് സ്ഥലമുണ്ട് ഒന്ന് ഒരു കുന്നിൻ്റെ ഭാഗത്തായിട്ട് വരും അവിടെ അവിടെ വീട് മാത്രമുള്ളതാണ് വീട് മാത്രം ഒരു ഇരുപത്തിയഞ്ച് ലക്ഷത്തിലൊക്കെ നമുക്ക് ഒപ്പിക്കാം വീട് ഒരു ആയിരത്തിയിരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ടാകും ആ പിന്നെ കുറച്ച് ഒരു മൊത്തത്തില് സ്ഥലം വരുന്നതൊരു പതിനഞ്ച് സെൻറ്റിലാണ് ആ അതുശരി പിന്നെ പിന്നെയുള്ളത് എങ്ങനെ ആ അതെ അതെ പിന്നെ നമുക്കുള്ളത് ഒരു അൻപത് സെൻറ് സ്ഥലത്തുള്ളതാണ് അത് കുന്നിൻ്റെ കുറച്ച് താഴെയായിട്ട് വരും പക്ഷേ നമുക്ക് കുന്നിൻ്റെ മുകളിലുള്ള പ്ലേസ് എന്നുപറയുമ്പോള് നല്ല വ്യൂ ഒക്കെയുള്ള നല്ല പ്ലേസായിരിക്കും ആ അതില് വീടും വരുന്നുണ്ട് വീടും ഒരു നാല്പ്പത് സെൻറ്റ് സ്ഥലത്തിനാണ് മൊത്തത്തില് വരിക അതിലൊരു ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിന്റെ വീടും പിന്നെ ആ അങ്ങനെയായിട്ട് വരും ഇപ്പം നിങ്ങള്ക്കതില് ഇല്ല വെള്ളവും കാര്യങ്ങളുമൊക്കെ അവിടെത്തന്നെയുണ്ട് വെള്ളവും സൗകര്യങ്ങളുമൊക്കെയുണ്ട് ആ അവിടെ അവര് അവിടെ കുഴലടച്ച് വെച്ചിട്ടുണ്ട് ആ നോർമലാണെന്നുണ്ടെങ്കില് അത് നമുക്ക് അവിടെനിന്ന് സെറ്റാക്കാം നിങ്ങളേതായാലും നിങ്ങളുടെ വിഷയങ്ങള് നിങ്ങള് പറയുക അ എല്ലാവരോടുമൊന്ന് ആലോചിച്ചിട്ട് സെറ്റാക്കാം പാലക്കാട് ഏരിയയിലെന്ന് പറയുമ്പോള് അവിടെ മണ്ണാർക്കാട് എത്തുന്നതിന്റെ മുമ്പ് അതല്ലേ നമുക്ക് നോക്കി സെറ്റാക്കാം പക്ഷേ ഇപ്പോള് നമുക്കുള്ളത് പാലക്കാട് മറ്റേ അരക്കുപറമ്പില്ലേ മണ്ണാർക്കാട് എത്തുന്നതിന് മുമ്പ് ആ ആ ഭാഗത്തൊരു പ്ലേസുണ്ട് അവിടെ ആ അവിടെയൊരു വീടും പിന്നെയൊരു പത്ത് സെൻറ് സ്ഥലവുമുണ്ടാകും വീടൊരു പതിനഞ്ച് സെൻറ്റില് വരും പിന്നെ പത്ത് സെന്റ് സ്ഥലം വേറെയുണ്ടാകും അതിന്റെ കുറച്ച് ഇപ്പുറത്തായിട്ട് അങ്ങനെയാണ് അവിടെയുള്ളത് അതില് നിങ്ങള്ക്കിപ്പോള് ഫർണീച്ചര് വേണുമെന്നുണ്ടെങ്കില് നമുക്ക് അവിടെനിന്ന് സെറ്റാക്കാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഏതായാലും നിങ്ങള് തീരുമാനിച്ചിട്ട് വിളിക്കൂ എന്നാല് ആയിക്കോട്ടെ നിങ്ങള് വിളിക്കൂ എന്നാല് ഓക്കെ ശരി